ആ ഹലോ ഞാൻ നിങ്ങളെ ഇത് ഓൺലൈനിൽ കണ്ടിട്ട് വിളിക്കുന്ന ആയിരുന്നേ ഞാൻ ഇപ്പോൾ ഉള്ളത് നെടുങ്കണ്ടത്താണുള്ളത് നിങ്ങളുടെ മാർക്കറ്റ് എവിടെ ആയിട്ടാണ് ഉടുമ്പൻചോല ആയിട്ടല്ലേ ആ അപ്പം ഓക്കെ ഓക്കെ പിന്നെ ഞാന് ഹോം ഡെലിവറി ഉണ്ട് ഞാൻ രാവിലെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നേ ആ വിളിച്ച് ആ ആ നെടുങ്കണ്ടത്താണ് ആ ഡെലിവറി ആരും ചോയിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ സാൽമണും പ്രോൺസും ക്രാബും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടല്ലേ ആ ക്ലീൻ അല്ലേ ആ ഓരോ കിലോ ആ ആ അതെ അതെ അതെ ആ അപ്പം വേറെ എന്തെങ്കിലും വേണോ ഏതാ ഉള്ളത്

ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ അത് ആ ഹാ ഹാ ഓക്കെ ഓക്കെ പിന്നെ ക്രാബ് ഒരു കിലോയാണ് ബുക്ക് ചെയ്തേക്കുന്നതേ അപ്പോൾ ഒരു രണ്ട് കിലോയും കൂടി ചേർത്ത് ഒന്ന് എടുത്ത് അങ്ങനെ മൂന്ന് എന്ന് ആക്കാവോ മൂന്ന് മൂന്ന് കിലോ ആക്കി ആ പ്രോൺസ് ഒരു അര കിലോയും കൂട്ടി വെച്ചോ ഒന്നര കിലോ വെച്ചേരേ ആയി ഓക്കെ ഓക്കെ സാൽമൺ ഇത് ഇന്ന് വന്ന ഫിഷ് ആണോ അതോ വെളുപ്പിന് എത്തി അല്ലേ ഫ്രഷ് ആയിറ്റ് ഉണ്ടല്ലേ ഓക്കെ ഓക്കെ ആ ഹാ ആ ക്രാബൊക്കെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കരം ആയിട്ട് പ്രോൺസും ഇതൊക്കെ ഇഷ്ടം ആണ് അൽപ്പം ആണല്ലേ ഓക്കെ ഓക്കെ ആ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഒക്കെ ഇവിടെ സ്ഥിരം ആയിട്ട് ഉള്ളത് ആണോ നെടുങ്കണ്ടത്തിലൊക്കെ മതി അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അല്ല നമ്മൾ ബുക്ക് ചെയ്ത് എത്ര നേരംകൊണ്ട് നമുക്ക് ഇവിടെ എത്തും ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ നിങ്ങടെ ഈ നമ്പര് തന്നെ ബുക്ക് ചെയ്താൽ ഗൂഗിൾ പേ ചെയ്താൽ പോരേ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ നിങ്ങളെ കാർഡും കൂടെ ഉണ്ട് ഞാൻ കൂടുതൽ കൊടുത്തേക്കേ